ഇത് വായ്പ തരുന്ന സ്ഥലമല്ലേ എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം സ്വർണ്ണം പണയം വയ്ക്കാൻ ആയിരുന്നു ആ ആ ഇല്ല എനിക്ക് ഇപ്പം ഒരു അഞ്ച് പവനാണ് ഉള്ളത് ആണോ അപ്പം

അപ്പം എത്ര കിട്ടും ആണോ എമൗണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു ആണോ അല്ല അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ കിട്ടാൻ എത്ര വെക്കണ്ട വരും അയ്യോ അത് കൂടുതലല്ലേ ആണോ ആ ഒരു വീടുണ്ട്

ചെയ്യാൻ പറ്റുമോ ആ ആ ആ അപ്പം നിങ്ങള് എത്ര പലിശ നിരക്കിലാണ് കൊടുക്കുന്നത് ആ ആ അത് ചെയ്ത് തരുമോ തവണ ആയിട്ട് അടക്കണോ അല്ലെങ്കില് പെട്ടെന്ന് ഇപ്പം മന്ത്ലി മതി ആ ആ ഓക്കെ ഓക്കെ ആ ആ ഇപ്പം ഒര് രണ്ട് ഒരു മൂന്ന് മാസത്തേക്കാണ് എടുക്കുന്നതെങ്കില് ഒപ്പരം തിരിച്ചടക്കാൻ പറ്റുകയില്ലെ കുറച്ച് ആ ആ ആണോ വീട് വെക്കാനല്ല ഒരു ബിസിനസ്സ് തുടങ്ങാനായിരുന്നു ആ ആ ആണോ ആ ആ ഓക്കെ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമൊ ആണോ ആ ആ ഓക്കെ ഓക്കെ ആ പിന്നെ വേറെന്തെങ്കിലും കൊണ്ട് വരണ്ട ആവശ്യം ഉണ്ടോ വേറെ ആ ആണോ ആ ഐഡിയോ ആ ആധാർ കാർഡാ ആ ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ